നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്ഷേത്രങ്ങളും പിന്നെ പള്ളികളും ഒക്കെ ഉണ്ട് നമ്മളിപ്പം ദൈവത്തിനെ ദൈവത്തിനെ ആ താ നമ്മുടെ ദൈവത്തിനെ നമ്മൾ ആചരിക്കുന്നുണ്ട് അത് ഓരോരുത്തർക്കും ഓരോ ദൈവങ്ങളാണ് ഉള്ളത് നമ്മളിപ്പോൾ തിരുനെല്ലി മഹാദേവ ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ ബലി ദർപ്പണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു അമ്പലമാണത് പിന്നെ വലിയ വെള്ളിയാഴ്ച്ചയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്കുള്ളതാണ് വെള്ളിയാഴ്ച്ച ജുമാ നിസ്ക്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച് ദിവസം അത് പള്ളി പോയിട്ട് നിസ്കരിക്കാൻ പറ്റുവൊള്ളൂന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളുണ്ട് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതോ ഒക്കെ എല്ലാവർക്കും ഉണ്ട് ഓരോ ആളുകളും ഓരോ മതത്തിൽ വിശ്വസിക്കുന്നുണ്ട് അതിപ്പോൾ നമ്മളാണെങ്കിൽ തന്നെ നമ്മൾ വേറെ മതത്തെ സ്വീകരിക്കുന്നു അവർ വേറൊരു മതം വിശ്വസിക്കുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാർ അവരവരെ ഇഷ്ട്ടത്തിന് ഇപ്പം മതം ഇല്ലാണ്ട് ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട് മതം മതവും ആചാരങ്ങൾ ഇതൊക്കെ എല്ലാത്തിലും പറഞ്ഞതാണ് നമ്മൾക്കത് വേണമെങ്കിൽ സ്വീകരിക്കാം വേണ്ടെങ്കിൽ മതമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോവുകയും ചെയ്യാം